എൻ്റെ ബാഗ് എൻ്റെ ഫോണും എൻ്റെ ബാഗിൻറ്റുള്ളിൽ ഫോണും എൻ്റെ ബാഗും നഷ്ടപ്പെട്ടായിരുന്നു അത് ഞാൻ സഞ്ചരിച്ചിരുന്ന ഒരു ഓട്ടോയിലായിരുന്നു അത് ഞാനത് എടുക്കാൻ വേണ്ടി മറന്നുപോയോ അപ്പോൾ ഞാൻ അങ്ങനെ ഞാനപ്പോൾ വീട്ടിൽ വീട്ടിലേക്കെത്തിയപ്പോൾ എൻ്റെ ബാഗും ഫോണും ഒക്കെ ഉള്ള ബാഗ് നഷ്ടമായി അങ്ങനെ ഞാനത് കണ്ടെത്തുന്നതിനായിട്ട് വേറെ ഒരു ഓട്ടോ വിളിക്കുകയാണ് വേറൊരു ഓട്ടോ വിളിച്ചിട്ട് ആ ഓട്ടോക്കാരനെ എന്താ പറയുക അയാളുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നമ്പർ നോട്ട് ചെയ്ത് ആ ഔട്ടോക്കാരന് കൊടുത്തു കൊടുത്തപ്പോളാണ് ഓട്ടോക്കാരൻ മറ്റുള്ള ഓട്ടോക്കാർക്കും ഇത് എന്താ പറയുക ഈ ഒരു ഈ ഒരു നഷ്ടപ്പെട്ട കാര്യം എല്ലാ ഓട്ടോറിക്ഷക്കാരെയും അറിയിച്ചു അങ്ങനെ അങ്ങനെ അറിയിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഓട്ടോയിൽ എൻ്റെ ബാഗ് ഉണ്ടെന്നും അത് സേഫായിട്ട് വെച്ചിട്ടുണ്ടെന്നും അയാൾ നമ്മളോടു വിളിച്ചു പറയുകയാണ് അപ്പോൾ ഇത്രയും ഒരു നല്ലൊരു സത്യസന്ധത കാണിച്ചത് കാണിച്ച ആ ഓട്ടോ ഡ്രൈവറിന് വലിയൊരു നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്തത് ആ ബാഗിലെ ഫോണും ബാഗൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ആ അദ്ദേഹത്തിന് പല രീതിയിലത് മിസ്യൂസ് ചെയ്യാമായിരുന്നു അതൊന്നും ചെയ്യാതെ ഞാൻ വേറൊരു ഓട്ടോനാവശ്യപ്പെട്ടപ്പോൾ ആ നമ്പർ കൊടുത്തപ്പോൾ അവരത് അവരാ ഓട്ടോയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൈമാറി നമുക്കാ ബാഗ് തിരികെ കിട്ടി വളരെ ഹാപ്പിയാണ് ഞാൻ ഈ കാലത്തും ഇങ്ങനത്തുള്ള സമൂഹത്തിൽ ആളുകളുണ്ടല്ലോ നമ്മളെ സഹായിച്ച ഓട്ടോ ഡ്രൈവർക്ക് വളരെയധികം നന്ദി പറയുന്നു ഞാൻ